നെയ്ത്തും തുന്നലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ ചെറുപ്പം മുതലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യണമെന്ന് അപ്പം സ്കൂളിലെ യൂണിഫോം ഡ്രസ്സുകളും ഒക്കെ താൻ സ്വന്തമായിട്ട് തയ്ച്ചിടണമെന്ന് എനിക്ക് ചുമ്മാ ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കുട്ടുകാരികളോടും ഞാനത് പറയുമായിരുന്നു അപ്പം അങ്ങനെ അന്നേരം ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താ വഴി നമുക്ക് തന്നെ തയ്ച്ച് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാമല്ലോയെന്ന് എല്ലാവർക്കും ഇഷ്ടമല്ലേ തുന്നി തയ്ച്ച തന്നെത്താനെ ഇടുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഞാൻ തയ്ക്കാൻ കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ കയ്യിലാണ് അപ്പോൾ ആ ചേച്ചി എനിക്കിങ്ങനെ പറഞ്ഞു തന്നു മകളെ ഇഷ്ടമാണെങ്കിൽ തയ്ച്ചോളൂ നല്ല നല്ലതാണ് തയ്ക്കുന്നത് നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു ഫാഷനുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി തയ്ക്കാൻ പറ്റും നമുക്കത് പുറത്ത് തയ്ച്ചും കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കാമെന്നു പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ആ ചേച്ചി എനിക്ക് യൂണിഫോമൊക്കെ തയ്ച്ചുതരും ആ ചേച്ചി എനിക്കിങ്ങനെ പയ്യെ സമയമുള്ളപ്പോഴൊക്കെ എന്നെ വെട്ടാനൊക്കെ പഠിപ്പിച്ചു തയ്ക്കാൻ പയ്യെ പയ്യെ പഠിപ്പിച്ചു അങ്ങനെ ഞാൻ എൻ്റെ എസ് എൽ സി സമയത്ത് ഞാൻ എൻ്റെ ഒരു ഒരു ഫ്രോക്ക് പോലത്തെ ഒരു കുഞ്ഞുടുപ്പ് നല്ല രസമായിരുന്നു അതു ഞാൻ തന്നെ തയ്ച്ചു ആ ചേച്ചി പറഞ്ഞു ആ ചേച്ചിയുടെ അറിവോടുകൂടി ഞാൻ നന്നായിട്ട് പയ്യെ തയ്ച്ചെടുത്തു ആദ്യമൊന്ന് അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽപ്പോലും നല്ല ആ ഇട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയാണെന്ന് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ലൊരു തുന്നി എൻ്റെ ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടുണ്ടല്ലോയെന്ന് എനിക്കതിനോട് അതുവഴിയെ പണങ്ങൾ പണം ഒരുപാട് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായി തയ്ച്ച എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് ഒരു വെക്കേഷൻ സമയത്ത് എൻ്റെ വീട്ടിൽ ആൻ്റി വന്നു അപ്പോൾ ആൻ്റി എന്നോട് പറഞ്ഞു മകൾ തയ്ച്ചതാണല്ലോ നല്ല ഡ്രസ്സാണല്ലോയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായി അപ്പോൾ ആൻ്റി എന്നോട് പറഞ്ഞു ആൻ്റിയുടെ ഒരു മകൾക്ക് മകളുണ്ട് മകൾക്കൊരു ചെറിയ ഉടുപ്പ് ഇതുപോലെ തയ്ച്ചു തരാമോയെന്ന് ചോദിച്ചു എനിക്കത് വലിയ സന്തോഷമായി പണമൊന്നും മോഹിച്ചിട്ടല്ല ഞാൻ തയ്ച്ചു കൊടുത്തത് എങ്കിൽപ്പോലും ഞാൻ പറഞ്ഞു ഞാൻ തയ്ച്ചു തരാം ആൻ്റി ഞാൻ ശ്രമിക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുഞ്ഞിൻ്റെ ഉടുപ്പ് നല്ല നല്ല നെറ്റിൻ്റെ ഒരു തുണിയായിരുന്നു അതു വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ല മനോഹരമായി തന്നെ ഞാൻ തയ്ച്ചു അപ്പം ആൻ്റി എന്താ പറയണത് എന്നൊന്നും എനിക്കറിയില്ല അപ്പം ആദ്യം നമ്മൾ തയ്ക്കുമ്പോൾ പൈസ വാങ്ങിക്കണോ പണം വാങ്ങിക്കണോ എന്നൊക്കെ ഒരു ഒരു ഒരു ആ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ തയ്ച്ചു കൊടുത്തപ്പോൾ ആ മകൾ അതിട്ടപ്പം നല്ല ഭംഗിയായിരുന്നു അന്നേരം ആൻ്റി എന്നോട് പറഞ്ഞു വളരെ നന്നായിട്ടാണല്ലോ തയ്ച്ചിരിക്കുന്നത് ഒരുപാടു നാൾ തയ്ച്ചൊരു എക്സ്പീരിയൻസ് വെച്ചാണല്ലോ ഈ തയ്ച്ചത് അതുപോലും നല്ല ഭംഗിയാണെന്നു പറഞ്ഞു ഒത്തിരി സന്തോഷമായി ആൻ്റി എനിക്ക് ആദ്യമായിട്ട് ആൻ്റിയാണ് എനിക്ക് പൈസ തന്നത് ഒത്തിരി അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഒത്തിരി സന്തോഷമായി ഞാൻ തന്നെ തന്നെ തുന്നൽ പഠിച്ച് അതുവഴി പണം പണം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ പയ്യെ ഫ്രീ സമയങ്ങളിൽ എൻ്റെ കൂട്ടുകാർക്കും ആ വീട്ടിൽ അനിയത്തിയുണ്ട് അമ്മയുണ്ട് അവർക്കൊക്കെ കുഞ്ഞ് കുഞ്ഞ് തയ്ക്കാൻ തുടങ്ങി ഓരോരുത്തരോട് ചോദിച്ചും ആ ചേച്ചി എന്നെ നന്നായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തയ്ക്കാൻ പറ്റി വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ തയ്ക്കാൻ തുടങ്ങി കൂട്ടുകാരികളും കുറച്ച് പൈസ വാങ്ങിയെ വാങ്ങിക്കുള്ളു എങ്കിൽപ്പോലും അവരെനിക്ക് തയ്ക്കാൻ തരുമായിരുന്നു നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത് ഞാൻ തയ്ച്ച് ഇട്ടാൽ അപ്പോൾ എൻ്റെ ഡ്രസ്സുകളും മൊത്തവും ഞാനാണ് തയ്ക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവരുടെയും എൻ്റെ കൂട്ടുകാരികളുടെയും ആൻ്റിയുടെയും പിള്ളേരുടെയും എല്ലാരുടെയും ഞാൻ തയ്ച്ചു അങ്ങനെ ഒരു വളരെ സന്തോഷകരമായ ജീവിതത്തിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പണം പണത്തിനുവേണ്ടി മാത്രമല്ല തയ്ക്കുന്നത് നമുക്ക് നമുക്ക് പറ്റുന്നൊരു കാര്യം നന്നായിട്ട് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനപ്പെടുത്തുക എന്നത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ പിന്നെ നൂലുകളുമായി നിരന്തരം പണിയെടുക്കുന്നതിൽ ആ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ മിഷ്യനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാലുവേദന എടുക്കും നടുവിനു വേദന എടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും നമ്മൾ എന്നുമെന്നു പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ തയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ അഞ്ചാറു മണിക്കൂർ ഒരു ദിവസം കണ്ടിന്യൂസായിട്ട് തയ്ക്കാനിരിക്കണം അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കണ്ണിന് പെട്ടെന്ന് ഇരുട്ട് കയറുന്നതുപോലെ തോന്നും തോളെല്ലാം പൊട്ടിപ്പോവും കാലുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് വേദന ശാരീരികവേദന ഉണ്ടെങ്കിൽപ്പോലും നമുക്ക് ഈ തയ്ച്ച് തുന്നി നെയ്ത്തും തുന്നലും എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് നമുക്ക് പണവും കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആ സന്തോഷം സങ്കടമൊക്കെ അങ്ങുമാറും അതുപോലെതന്നെ ഈ പല പഴയ ഒരു പഴയകാലത്ത് നെയ്ത്തും തുന്നലും എല്ലാം വന്ന് എല്ലാവരും തന്നെത്താൻ പഠിച്ച് എല്ലാവർക്കും പണം ഉണ്ടായി അവനോ എല്ലാവരുടെയും വസ്ത്രങ്ങളും മറ്റ് എല്ലാ സാധനങ്ങളും അവനവൻ തന്നെ തയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിലൊരുപാട് സന്തോഷമുണ്ട് എനിക്ക് ശാരീരിക വേദനകൾ ഉണ്ടെങ്കിൽപ്പോലും നമ്മളത് അവഗണിച്ച് നമ്മുടെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്കും തയ്ച്ചുകൊടുത്ത് നമ്മൾക്കും എടുക്കാം ഇതാണെങ്കിൽ തയ്ക്കുന്നതിന് ഒരുപാട് ഇപ്പം പലയിടത്തും തയ്ക്കുന്നതിന് ഒരുപാട് റേറ്റാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയമെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് തയ്ച്ചെടുത്താൽ നമുക്കത് ഒരുപാട് പ്രയോജനപ്പെടും ഒരുപാടുനാൾ നമുക്ക് ഉപയോഗിക്കാം ആർക്കും ഒരു ശല്യവും ഇല്ലാതെ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊത്തിരി നാൾ ഉപയോഗിക്കാം ആർക്കും അത് കീറിപ്പോകുമോ കേടാവുകയോ ഒന്നുമില്ല നമുക്ക് ഒരുപാടുനാൾ ഉപയോഗിക്കാം നമ്മൾ തന്നെ തുന്നൽ തുന്നി നമ്മൾ തയ്ച്ച് ഇടുകയാണെങ്കിൽ നമുക്കൊത്തിരി നാൾ ഉപയോഗിക്കാം വസ്ത്രങ്ങൾ അത് എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് വരട്ടേയെന്നാണ് എൻ്റേയും ആഗ്രഹം